ഇന്ന് വിപണിയിൽ ഏറ്റവും കൂടുതലായി കണ്ടു വരുന്നത് റെഡിമെയ്ഡ് വസ്ത്രങ്ങളാണ് ഇന്നെല്ലാവരും തന്നെ റെഡിമെയ്ഡ് തന്നെയാണ് ഉപയോഗിക്കുന്നത് വളരെ കുറച്ച് പേരെ അതായത് ആദ്യമേ കൈത്തറി മെറ്റീരിയൽസ് വാങ്ങി തയ്ക്കുന്ന ആൾക്കാർ മാത്രമാണ് ഇതുപയോഗിക്കുന്നത് നെയ്ത്തു തുണികളും ഒക്കെ വാങ്ങി ഇഷ്ടമുള്ളവരൊക്കെയാണത് അതൊക്കെ ഉപയോഗിക്കുന്നത് ഇന്ന് എളുപ്പം തന്നെ റെഡിമെയ്ഡ് തന്നെയാണ് റെഡിമെയ്ഡ് വസ്ത്രങ്ങളാണ് ഇന്ന് അതും റെഡിമെയ്ഡ് വാങ്ങുകയാണെങ്കിൽ നമുക്കത് ഷെയ്പ്പാക്കുക മാത്രം തന്നെ മതി മെറ്റീരിയൽ വാങ്ങി സ്റ്റിച്ച് ചെയ്യിക്കുകയാണെങ്കിൽ മെറ്റീരിയലിൻ്റേയും പൈസ കൊടുക്കണം സ്റ്റിച്ച് ചെയ്യുന്നതിൻ്റെയും പൈസ കൊടുക്കണം അതിന് നമ്മൾക്ക് വളരെയധികം നഷ്ടമാണ് ലഭിക്കുന്നത് പക്ഷെ നമ്മളിപ്പം സ്റ്റിച്ച് ചെയ്ത് വസ്ത്രം ഇടുകയാണെങ്കിൽ ഇനിയൊരു നല്ലൊരു ഷേപ്പും നല്ലൊരു ഭംഗിയും ഒക്കെ എന്തുകൊണ്ടും കിട്ടുന്നത് തുണി മേടിച്ച് തയ്ക്കുന്നത് തന്നെയാണ് ഇപ്പോൾ ആളുകൾ നെയ്ത്ത് വ്യവസായത്തിലേക്ക് ഒക്കെ വളരെ അത്ര വലിയ ലാഭമൊന്നും കാണുന്നില്ലെന്നാണ് എനിക്ക് തോന്നുന്നത് ഇഷ്ടമുള്ളവർ മാത്രം വാങ്ങി അടിക്കുന്നു